ഇതിനെ അങ്ങനെയൊരു തൊഴിലായിട്ടു കാണുന്നില്ല മത്സ്യബന്ധനം ഞങ്ങളങ്ങനൊരു തൊഴിലായിട്ടല്ല പോകുന്നത് ഞങ്ങള് ഞങ്ങളുടെ രസത്തിനും ഞങ്ങള്ക്കു കഴിക്കാനും കഴിക്കാനും വേണ്ടയിട്ടാണ് പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു രസമാണ് അതിങ്ങനെ കൂട്ടുകാരുടെ കൂടെയൊക്കെ ആവുമ്പോള് അടിപൊളിയായിരിക്കും അങ്ങനെ പോകുന്നതാണ് അല്ലാണ്ട് മത്സ്യബന്ധനം ഇതിനായിട്ടുതന്നെ പോവില്ല അടുത്ത തലമുറയും ഏയ് മത്സ്യബന്ധനത്തിനു കുഴപ്പമൊന്നുമില്ല കടലിന്റെ തീരത്തുള്ളവരൊക്കെ തലമുറ തലമുറകളായിട്ടു മത്സ്യബന്ധനം തന്നെയായിരിക്കും എന്നാലിപ്പോള് അതിനകത്തൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോള് തലമുറകളായിട്ടു വരുമ്പോള് അതിനകത്തു കുറേ ചേഞ്ച് വന്നിട്ടുണ്ട് പലരും മാറിപ്പോവും എങ്ങനെയാണെങ്കിലും മത്സ്യബന്ധനത്തിനു തന്നെ ഒന്നും തുടര്ന്നു നില്ക്കാണ്ടു പല രീതിലായിട്ടു പല വഴിയില്പ്പോവും ഇപ്പോഴങ്ങനെയില്ല പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെ സ്വാഭാവികമായിട്ടും വന്നേനെ അവരവരെ ചോയ്സ് പോലെ ഇനിയിപ്പോള് എൻ്റെ മകനാണെങ്കില് അവനിപ്പോള് അതാണു താല്പര്യമെങ്കിൽ ബോട്ടും കുഴപ്പമൊന്നുമില്ല ഒരു ബോട്ടൊക്കെ എടുത്തിട്ട് പൈസയാണ് ജീവിക്കാനതൊക്കെ മതി രണ്ടു മൂന്നു മത്സ്യ ബന്ധന ബോട്ടൊക്കെ ഉണ്ടെങ്കില് പിന്നെ അതിനകത്തു കുറച്ചു പണിക്കാരും എല്ലാവരും ഉണ്ടെങ്കില് കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനെ ആഗ്രഹിക്കുന്നൊന്നുമില്ല എന്നാലും അവരുടെ ആഗ്രഹം പോലെ